നിങ്ങളുടെ അതിഥികളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഞാൻ അതിഥികളെ കൊണ്ടു പോകാനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കുക ഊട്ടി ആയിരിക്കും ഊട്ടി ഊട്ടിയിലേക്ക് പോകുമ്പോൾ തന്നെ നാടുകാണി നിലമ്പൂർ കഴിഞ്ഞ് വഴിക്കടവ് വഴി വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ പിന്നെ കാശ്മീർ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ തണുപ്പ് കാലമാണ് കാശ്മീർ പോലെ തോന്നുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയിലേക്ക് പോകുന്ന രണ്ടു സൈഡും ഗുഡല്ലൂർ വരെ നാടുകാണി ഗുഡ വഴിക്കടവ് തൊട്ട് ഗൂഡല്ലൂർ വരെ വനത്തിൻ്റെ നടുവിൽ കൂടിയാണ് ആ റോഡ് പോണ് വളരെ മനോഹരമായ ഒരു സ്ഥലം ആ നല്ല കാറ്റടിച്ച് അങ്ങ് ചെന്നു കഴിയുമ്പോൾ ഗൂഡല്ലൂർ ടൗണ് കഴിഞ്ഞ് ഊട്ടിയിലേക്ക് തിരിയുമ്പോൾ രണ്ട് സൈഡുകളിലും യൂക്കാലിസ് മരങ്ങളുടെ ഒരു നിര കാണാം മനുഷ്യൻ ഇങ്ങനെ ലൈൻ ആയിട്ട് നിർത്തിയിരിക്കുന്നതു പോലെ അതിൻ്റെ ഇടയിൽ കൂടി ഓടിക്കളിക്കാനും പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും തേയില കാടുകളാണ് ആ തേയിലക്കാടുകളിലൊക്കെ ഒന്നിറങ്ങി ആ കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് വളരെ മനോഹരമായിരിക്കും അത് ആ തേയിലക്കാടുകളിലൂടെ പോകുന്ന അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ മസിനഗുഡി ആ മസിനഗുഡി ഒക്കെ ചെന്ന് ചെന്ന് വണ്ടിയെ നിർത്തി കാട്ടു മൃഗങ്ങളെ വളരെ നമുക്ക് കാണാൻ വളരെ അടുത്ത് ആന മാനുകൾ ഒക്കെ മയിലൊക്കെ കാണാൻ കഴിയും മനോഹരമായ കാഴ്ച ആണ് അത് എത്ര പോയാലും മതി വരാത്ത ഒരു സ്ഥലമാണ് അതൊക്കെ അതുപോലെ മസിനഗുഡി ഗുണ്ടൽപേട്ട സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന പൂക്കളുടെ ഒരു സൂര്യകാന്തിയുടെ ഒരു നിര തന്നെ ഉണ്ട് വളരെ മനോഹരമായ നിര ഇടയ്ക്ക് വീശുന്ന ആ കാറ്റു കൊണ്ട് അവിടെ മരങ്ങൾ അങ്ങനെ മുറിച്ചു കളയാറില്ല അപ്പോൾ ആ മരങ്ങൾ ഇങ്ങനെ കാറ്റത്ത് ഊഞ്ഞാലാടുന്നത് കാണുമ്പോൾ വളരെ വളരെ മനോഹരമാണ് അതു കൊണ്ടാണ് ഊട്ടിയിലേക്ക് ഊട്ടിയിൽ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഫ്ലവർ ഷോ ഉണ്ടാകും എല്ലാം കാണാൻ കഴിയാത്ത എല്ലാ പൂക്കളും നമുക്ക് അവിടെ കാണാൻ കഴിയും ആ ഫ്ലവർ ഷോയും തടാകങ്ങളും ആ തടാകത്ത് കൂടെ ബോട്ട് യാത്ര ചെയ്യാനും ഒക്കെ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ട്രെയിൻ ഉണ്ട് ഒരു ട്രയിൻ കയറി ഇങ്ങനെ ഊട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റി വരാം അവിടെ ചെന്നാൽ നമ്മൾ നല്ല തണുപ്പ് കാലത്ത് ആണെങ്കിൽ നമ്മൾ വിറയ്ക്കും ഉത്തരേന്ത്യയിൽ പോയതു പോലെ ഉണ്ടാകും കേരളത്തിലുള്ള കേരളത്തിനും തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ തമിഴ്നാടിന് അനുഗ്രഹിച്ച് പ്രകൃതി പ്രകൃതി തന്നെ ദൈവം തന്ന ഒരു സ്ഥലം ആണ് ഊട്ടി അതുപോലെ തന്നെ പിന്നെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ മൂന്നാറിൽ പോയാലും ഇതേ പോലെ തന്നെയാണ് തേയില തോട്ടവും മലകളും കുന്നുകളും നിറഞ്ഞ പിന്നെ പഴ വർഗങ്ങളുടെ തോട്ടങ്ങൾ തന്നെ അവിടെ ഉണ്ട് ആപ്പിള് എനിക്ക് ഞാൻ അവിടെ പോയിട്ടുള്ളതു കൊണ്ട് ശരിക്ക് കണ്ടിട്ടുമുണ്ട് ആപ്പിളൊക്കെ കൃഷി ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന പലവിധ പഴ വർഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ആണ് തോട്ടങ്ങളായിട്ട് തന്നെ ആളുകൾ കൃഷി ചെയ്തത് അവിടെ കാണാൻ കഴിയും അത്രയും മനോഹരമാണ് മൂന്നാർ മൂന്നാറില് പോയി പോയാൽ ഞൻ ഇതേ പോലെ തണുത്ത കാറ്റും തണുത്ത പ്രദേശവുമാണ് ആ വളഞ്ഞു പുളഞ്ഞ റോഡുകളുളള വഴി പോകാൻ നല്ല ഭംഗിയാണ് വളരെ മനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെയാണ് മലമ്പുഴ മലമ്പുഴയിൽ പാർക്ക് ഉണ്ട് കുട്ടികളുടെ പാർക്ക് ഉണ്ട് വലിയവരുടെ പാർക്കുമുണ്ട് മലമ്പുഴയിൽ മലമ്പുഴയൊക്കെ കാണാൻ വൈകുന്നേരങ്ങളിലാണ് പോകാൻ നല്ലത് ഇപ്പോൾ വെയിൽ ആയത് കൊണ്ട് ബുദ്ധിമുട്ടാണ് വൈകുന്നേരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ യന്ത്രത്തിലും കയറി ഊഞ്ഞാലാടി നമുക്ക് നടന്ന് കാണാൻ മാത്രം കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് വളരെ ഭംഗിയുള്ളതും മനോഹരവുമായ സ്ഥലങ്ങളാണ് അത് ഇതൊക്കെ മലമ്പുഴയൊക്കെ ഒരുപാട് കുട്ടികൾക്ക് കയറാൻ പറ്റിയ സ്ഥലങ്ങൾ വലിയ ആളുകൾക്ക് പോയി കേറി നടക്കാൻ പോകാനും പറ്റിയ സ്ഥലങ്ങൾ എല്ലാം മലമ്പുഴയിലുണ്ട് അവിടെയും ബോട്ടിങ്ങ് ഉണ്ട് ബോട്ടിങ്ങിന് പോവാം ആ ബോട്ടിങ്ങ് പോയി പോയി ആസ്വദിച്ച് ഉല്ലസിച്ച് വരാം അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഗോവ ഇന്ത്യയിലെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോവയും വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് ആ ശാന്തമായ പ്രദേശത്തു കൂടെ വളരെ മനോ പിന്നെ ഇങ്ങനെ നടന്നു പോകാം മരങ്ങൾക്ക് ഇടയിലൂടെ ആ മരങ്ങൾക്കിടയിൽ ഇരുന്ന് ആ ശാന്തമായ പ്രദേശത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ് പ്രകൃതി അനുഗ്രഹിച്ച ഒരു ഭംഗി അത് പോലെ കടലിൻ്റെ തീരത്താണ് ആ കടൽ കടലിൻ്റെ തീരത്ത് ഇരുന്നു കടലിലോട്ട് നോക്കി പിന്നെ കപ്പലും ബോട്ടും ഒക്കെ പോകുന്ന ആ കാഴ്ച ഇങ്ങനെ കാണാം വളരെ മനോഹരമായ കാഴ്ചയാണത് അതിൻ്റെ കട അങ്ങേ കരയിൽ ബ്രിട്ടീഷുകാർ പണ്ട് പണിതിട്ട ബിൽഡിങ്ങുകളൊക്കെ ഗോവയിൽ പോയാൽ കാണാം അത്ര മനോഹരമായ കാഴ്ചയാണ് കടപ്പുറത്തുള്ളത് സായിപ്പന്മാരും മദാമ്മമാരും വന്ന് കുളിക്കുന്നതും കിടക്കുന്നതും ഒക്കെ കാണാം അത്ര മനോഹരമാണ് പിന്നെ ഏറ്റവും കൊണ്ടുപോവാൻ ഞാൻ ആഗ്രഹിക്കുന്ന പിന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ദുബായ് ആണ് ഏറ്റവും എനിക്ക് എത്ര കണ്ടിട്ടും മതിവരാത്ത ഒരു സ്ഥലമാണ് ദുബായ് ഇന്ത്യ വിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അത്ര മനോഹരമായ കാഴ്ചകളാണ് ദുബായിൽ അന്താരാഷ്ട്ര വിമാനത്താവളം കപ്പലിൽ അടുത്ത് ചെന്ന് കപ്പലിൽ കയറാൻ പറ്റിയ സ്ഥലങ്ങൾ അവിടുത്തെ റോഡു സൈഡിൽ പോലും നട്ടിരിക്കുന്ന പൂന്തോട്ടങ്ങൾ അവർ ആ സസ്യങ്ങളെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അവരുടെ ആ സഞ്ചാര പാത പോലും ഒരു അപകടവും ഉണ്ടാവാത്ത ആറും ഏഴും ലൈനും റോഡ് അങ്ങോട്ട് പോകുന്നതും ഒരു വണ്ടിയും കൂട്ടിയിടിക്കാത്ത ഇരിക്കത്തക്ക രീതിയിൽ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു വൺ സൈഡ് വൺ വെ പോകുന്ന ഒരു വൺ സൈഡ് മാത്രം തിരിച്ചു പോകുന്നവർക്ക് തിരിച്ചു പോകുന്നത് മാത്രം റോഡ് അതുപോലെ അവിടുത്തെ ഒരു റാസൽ കൈമ എന്നു പറയുന്ന സ്ഥലത്ത് മലയുണ്ടാകും ആ മലയൊക്കെ വളരെ മനോഹരമാണ് അതൊക്കെ പോയി നടന്ന് കയറി കണ്ടിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോൾ മനോഹരമായ ഒരു കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും ആ കാറ്റ് നമ്മളെ മറച്ചിടുമെന്ന് തോന്നും അതൊക്കെ എത്രയോ വളരെ മനോഹരമായ സ്ഥലമാണ് ആ അതുപോലെ തന്നെ ഇവിടെ തേക്കടി തേക്കടിയിലെ ആന ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് തേക്കടിയിൽ ആലം തേക്കടിയുണ്ട് വനത്തോട് അതിർ വനത്തിൻ്റെ അതിർത്തിയാണ് അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തടാകത്തിലൂടെ ഹൗസ് ബോട്ടിലിങ്ങനെ ഒരു രാത്രി കഴിച്ചു കൂട്ടുക അതിന് സാധിച്ചിട്ടില്ല അത് ഏറ്റവും വലിയ മനോഹരമായിരിക്കും അത് ആ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ തടാകത്തിൽ കൂടെ ഇങ്ങനെ പോകാം നിർത്തേണ്ടപ്പോൾ അത് അവിടെ നിർത്തി നമ്മൾ അവിടെ പാചകം ഒക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ദിവസം ഒരു ദിവസം രണ്ട് ദിവസം താമസിക്കാം ഭൂമിയിൽ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മനുഷ്യന് അത് അതൊക്കെ കണ്ട് ആസ്വദിക്കണം നമുക്ക് തന്നേക്കുന്ന ഈ ജന്മം ഈ ജന്മം കഴിഞ്ഞാൽ അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രം അതൊക്കെ പോയി കാണേണ്ടതു തന്നെയാണ് അതുപോലെ മൂകാംബിക മൂന്ന് പുഴകൾ ഒന്നിച്ച് ചേരുന്ന ആ സംഗമ സ്ഥലം ഒക്കെ ഒന്ന് പോയി കാണേണ്ടതാണ് ദൈവം ദെ മനുഷ്യന് ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ പ്രകൃതി എത്ര മനോഹരമായി വരച്ചിട്ടതാണ് ഈ ഭൂമിയിൽ ഈ സഞ്ചാര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എല്ലാം എത്ര കണ്ടാലും മതി വരില്ല എല്ലാവരെയും കൊണ്ടു പോയി കാണാൻ ഇനിയും ഇനിയും സ്ഥലങ്ങളുണ്ട് അതായത് താജ്മഹൽ താജ്മഹൽ ആഗ്രയിൽ പോയി താജ്മഹൽ കാണുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആരെങ്കിലും പോയി ഒന്ന് കൊണ്ട് പോയി കാണിക്കാൻ എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി പണിത താജ്മഹൽ അങ്ങനെ തിരുവനന്തപുരത്ത് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള തിരുവനന്തപുരത്ത് ഉണ്ട് കോവളം കോവളം ബീച്ചിൽ പോയിട്ടുണ്ട് അതൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് മനോഹരമായ സ്ഥലമാണ് ആ കടലിലെ സൈഡിലോട്ട് ഇറങ്ങി നിന്ന് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുക വള്ളത്തിൽ പോകുക ആ തിരമാല മെല്ലെ മെല്ലെ വന്നിങ്ങനെ അടിക്കുന്നത് കാണാനൊക്കെ എത്ര മനോഹരമാണ് അതൊക്കെ ഇവരെ കൊണ്ട് ഒക്കെ എല്ലാവരെയും കൊണ്ട് പോയി കാണിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്